ഹലോ ഇത് ഊബറല്ലായിരുന്നോ നമ്മൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എയർപ്പോർട്ടീ പോവാനായിരുന്നു ഏകദേശം എത്ര സമയമെടുക്കും ലൊക്കേഷൻ വരെ എത്തണമെങ്കിൽ നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് വല്ല ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേറെ റൂട്ടിലോട്ട് പോകാൻ അങ്ങനെ വഴിയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നറിയാൻ പറ്റോ അല്ലാ എത്ര സമയയെടുക്കും ഏകദേശം അവിടം വരെ ചെല്ലാൻ വേറെ വല്ല ഈസിയായിട്ടുള്ള വഴി ഉണ്ടോ അതോ നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ പെട്ട് കിടക്കണോന്നറിയാൻ വേണ്ടിയായിരുന്നു നമുക്കിനി എയർപ്പോർട്ടീ ചെന്നിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ടൈമ് ലേറ്റായാൽ നമ്മുടെ ഫ്ലൈറ്റും പോകും നിങ്ങൾക്കുള്ള സാലറീം കട്ടാകും അപ്പം നമ്മളെ കറക്റ്റായിട്ട് എത്തിക്കാൻ എന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്വമല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു ഏകദേശം എത്ര മണിക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഒരു ഒരു മണിക്കാണിവിടെന്ന് ഇറങ്ങുന്നത് ഏകദേശം അവിടെ എപ്പോൾ ചെ ചെല്ലും നിങ്ങൾ ഊബറ് ബുക്ക് ചെയ്തിട്ട് അവിടെ എത്ര മണിയാകുമ്പോഴ്ത്തേന് ഏകദേശം ചെല്ലും എയർപോട്ടിൽ അപ്പം അവിടെന്ന് ലേഗേജ് ഒക്കെ എടുത്ത് കയറണമായിരുന്നു പിന്നൊരു ബന്ധുവിൻ്റെ വീട്ടിൽ കയറണമായിരുന്നു ഒരു കസിനൊക്കെ കൂടെ വരുന്നുണ്ട് അവരെല്ലാം പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അപ്പം ഏകദേശം ഡെലിവറി ടൈമ് അവിടെ എപ്പം എത്തും ലൊക്കേഷന് ഒന്ന് ട്രോപ്പെയ്യുന്ന ടൈമ് അങ്ങനെ പോയിട്ട് വേണേലോ നമുക്ക്